സന്ദർശകർക്ക് വിനോദരൂപങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന എന്ന് പറയുമ്പോൾ പറശ്ശിനിക്കടവിലുള്ള വിസ്മയ വാട്ടർ തീം പാർക്ക് എന്താണ് പറയുക ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഒരുപാട് എന്താണ് പറയുക കുഞ്ഞുകുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാർക്ക് വരെ ഒരുപാട് ഇത് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമാകാൻ പറ്റുന്ന ഒരു വാട്ടർ തീം പാർക്കാണ് വിസ്മയ എന്ന് പറയുന്നത് പിന്നീടുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ണൂർ തന്നെയുള്ള പയ്യാമ്പലം ബീച്ച് ചാൽ ബീച്ച് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് നമ്മളുടെ സമയം അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ചില നല്ല നല്ല നല്ല സ്ഥലങ്ങൾ ഒരുപാടുണ്ട് പിന്നെ അത് പിന്നെ പറയുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് മൃഗശാലകൾ പറശ്ശിനിക്കടവ് തന്നെയുള്ള ഒരുപാട് മൃഗശാലകളുണ്ട് അങ്ങനെ പറയാനാണെങ്കിൽ നല്ല രീതിയിൽ പല രീതിയിൽ നമുക്ക് നമ്മളുടെ ആൾക്കാരൊക്കെ സന്തോഷവും സമാധാനവും നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് നമ്മളുടെ നാട്ടിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്